ഹലോ ഹലോ ഇതാരാണ്

അവനൊരു എണ്ണൂറ് മീറ്ററിനും നൂറ് മീറ്ററിനും പിന്നൊരു അദ്യം കൊടുത്തോ ആ ചെയ്തോളാം ചെയ്തോളാം ആയിക്കോട്ടെ ആ

ആ ഷൂ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ

ആ ഓട്ടം പറ്റും പിന്നെ

ആയിക്കോട്ടെ നോക്കാം ആയിക്കോട്ടെ നോക്കി നോക്കാം ശരി